നമ്മുടെ മാതൃഭാഷയായ മലയാളം നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നുനിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനാണ് ഏറെ താല്പര്യം കാണിക്കുന്നത് അതുപോലെ സ്കൂളുകളിലും പഠനത്തിലും കൂടുതൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം എടുക്കുന്നു അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നു ഇംഗ്ലീഷ് പഠിച്ചിട്ടേ കാര്യമുള്ളൂവെന്ന് വിചാരിക്കുന്നു നമ്മൾ കൂടുതൽ മലയാളത്തെ നമ്മൾ പിന്നിലേക്കാക്കുന്നത് പോലെയാണ് അതുപോലെ എന്താണ് കൂടുതൽ കുട്ടികൾക്കും ഇംഗ്ലീഷ് മാത്രമേ പറയുകയുള്ളൂ മലയാളം എഴുതാനും വായിക്കാനുമൊന്നിനും അറിയുന്നില്ല അതുപോലെ നമ്മള് പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയാണ് വേണ്ടതെന്ന് കരുതി കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ പിന്തുണ കൊടുക്കുന്നു മലയാള ഭാഷയെ നമ്മൾ അടിച്ചമര്ത്തുന്നത് പോലെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുൻകാല ആളുകൾ കൂടുതലും മലയാളഭാഷയെ കൂടുതൽ എല്ലാവരിലേക്കും എത്തിക്കുന്നത് പോലെ എത്തിച്ചിട്ടും എന്നാൽ ഇപ്പോഴത്തെ ആളുകൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ അകറ്റിനിർത്തുകയാണ് ഇഷ്ടപ്പെടാത്തതുപോലെ മലയാളഭാഷയെ അകറ്റിനിർത്തി ഇംഗ്ലീഷ് ഭാഷയാണ് നല്ലത് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ടേ കാര്യമുള്ളൂ ഇംഗ്ലീഷ് ഭാഷയാണ് നമ്മുടെ മാതൃഭാഷയെന്ന് പറയുന്നവരാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അതുകൊണ്ട് എല്ലാവരും കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയാണ് പഠിക്കുന്നത് പിന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ട് കൂടുതൽ ജോലി കിട്ടാനും അതുപോലെ പഠിക്കുമ്പോൾ അതിന് കൂടുതൽ അറിയാനും എല്ലാത്തിനും ഇംഗ്ലീഷ് ഭാഷ കൊടുക്കുന്നു ഇപ്പോൾ കൂടുതലും മലയാളത്തിന് കൂടുതൽ നമ്മൾ പിന്തുണ കൊടുക്കുന്നില്ല അതുപോലെ മലയാളം നമ്മുടെ കുട്ടികൾക്കൊന്നും മലയാളം അറിയില്ല ഇതേത് ഭാഷയാണ് ഇതെന്ത് എങ്ങനെയാണ് പറയുന്നത് അക്ഷരങ്ങൾ ഒന്നും അറിയില്ല എഴുതാനും വായിക്കാനും ഒന്നിനും മലയാളം അറിയില്ല പിന്നെ അതുപോലെ ഇംഗ്ലീഷ് കൂടുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു പിന്നെ മലയാളം മലയാളപുസ്തകങ്ങൾ വേണ്ട ഒഴിവാക്കി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുന്നു പഠിക്കുന്നു ഇംഗ്ലീഷിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ട് എന്തൊക്കെ കാര്യമുണ്ട് എങ്ങനെയൊക്കെ പഠിക്കണം എന്തെല്ലാം പഠിക്കണമെന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്നു അതുപോലെ മലയാളത്തിനൊന്നും ഒരു പിന്തുണയും കൊടുക്കുന്നില്ല ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ വളർത്തിയെടുക്കാം എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാമെന്നാണ് കൂടുതൽ ആളുകളും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്